ഹലോ ട്രാവൽ എജൻസി ട്രാ ആ പറഞ്ഞോളു ആ പറഞ്ഞോളു ഓ ഇഷ്ടം മാതിരിയുണ്ട് മേഡം കണാൻ തെക്കും മ്യൂസിയം ഉണ്ട് കനാൽ പോർട്ടുണ്ട് പിന്നെ ആറ്റും പാറ വെള്ളചാട്ടം പിന്നെ പൂക്കൂട്ടുംപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടൊരു കതിർ പിന്നെ ടി കെ കോളനി ആ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയുണ്ട്

ആ പതിനഞ്ച് പേർക്ക് മറ്റേ മറ്റേ ട്രാ ട്രാവലറുണ്ടല്ലോ ചെറുത് പതിനേഴ് പേരുടെ സീറ്റുള്ളതുണ്ട് അതിന് കിലോമീറ്ററിനനുസരിച്ചാണെൽ ആദ്യത്തെ പത്ത് കിലോ മീറ്റർന് മൂവായിരവും പിന്നത്തെ കിലോ മീറ്റർന് ഒരു കിലോ മീറ്റർന് വെച്ചിട്ട് നാൽപ്പത് രൂപ വെച്ച് കൂടും അപ്പം നിങ്ങൾ അവിടുന്ന് ഇവടെ വന്നിട്ടാണോ നിലമ്പൂർ വന്നിട്ടാണോ ട്രാവലറ് ഇതാകീട്ട് പോന്നതത് അതോ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടോണ്ടി കൊണ്ടോട്ടിക്ക് നേരിട്ട് വണ്ടി വിടുവാണോ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം ആ നിങ്ങൾ ആ അതായത് നിങ്ങൾ വൺ ഡേ ടൂറാണോ ഉദ്ദേശിക്കുന്നത് അതോ നിങ്ങളന്നിവിടെവിടേലും സ്റ്റേ ചെയ്യുന്നുണ്ടോ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയ നല്ല സ്ഥലോണ്ടെട്ടോ ടി കെ കോണ്ടിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല ഇതൊണ്ടെട്ടോ റിസോർട്ടളൊക്കെയുണ്ടെട്ടോ ആ ഉണ്ടുണ്ട് റിസോർട്ടുകളൊക്കെയുണ്ട് ആ ഭക്ഷണം ഒക്കെ നിങ്ങളിതാക്കുവാന്നൊണ്ടെങ്കിൽ ടിക്കറ്റും ഭക്ഷണം ഈ വണ്ടി ചാർജിൽ കുറഞ്ഞ പൈസ വരുന്നത്

ആ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഏ സിയാണോ വേണ്ടത് ഏതാണേലും രണ്ടുമുണ്ട് നമ്മുടെ അടുത്ത് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോഴ്ത്തേന് ഏ സിയായിരിക്കും നല്ലത് കാരണം ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവൂലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഏ സിയായിരിക്കും നല്ലത് ആ നാളെ സമയം പറഞ്ഞോളു മേഡം ആ ആയിക്കോട്ടെ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ട് ആ നെലമ്പൂർ ഫർത്താ ഹോട്ടലിൽ ഏൽപ്പിക്കാം നിങ്ങളുടെ രാവിലത്തെ ഫുഡ്ഡ് നിങ്ങൾക്ക് ഇനിന്തേലും വേണമെന്നുണ്ടോ അതോ എന്നാൽ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങളുടെ രാവിലത്തെ ഫുഡ്ഡ് അവിടെയാണ് ഉച്ചത്തെ പിന്നെ നമ്മളതിനനുസരിച്ച് അറേഞ്ച് ചെയ്യും നിങ്ങളെവിടെയാണോ അതിനനുസരിച്ച് നമ്മളറേഞ്ച് ചെയൂട്ടോ അപ്പോൾ നിലമ്പൂർ നിങ്ങളിറിങ്ങിക്കോളു നിങ്ങൾക്ക് അവിടെ ഞങ്ങൾ വണ്ടി ഫർത്ത ഹോട്ടൽൻ്റെ മുമ്പിലിറങ്ങിക്കോ അവിടെത്തന്നെ വണ്ടിയുണ്ടാവും അവിടന്ന് ഫുഡ്ഡ് കഴിച്ച് നിങ്ങൾക്ക് ഫ്രഷായിട്ട് അവിടന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം സ്റ്റേയാണെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതിനുള്ളതും ശരിയാക്കാം അപ്പം ആ ആയിക്കോട്ടെ അപ്പം നാളെ കാണാം ശരിയെന്നാൽ